ഹലോ സാര് അതേ എന്റെ വീട്ടിൽ രണ്ട് മുറികളിലെ എ സി മിക്കതും മക്കൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് കറൻറ് ബിൽ മിക്കവാറും മാസം ഒരു പതിനായിരത്തിനടുത്തൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് കുറയ്ക്കാനായിട്ട് അപ്പം ഞാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പം സാർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരുമോ ഇപ്പം ചെ സാർ ഇപ്പം പറഞ്ഞു സോളാർ വെച്ച് കഴിഞ്ഞാൽ കറൻറ് ചാര്ജ് ഉപയോഗം കുറയുമെന്നുള്ളത് അപ്പം അത് എങ്ങനെയാണ് നമ്മുടെ കെ സി ബി ചെന്നിട്ടാണോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കെ സി ബി ഓഫീസിലാണോ അതിന്റെ കാര്യങ്ങൾ പിന്നെ ചെയ്യേണ്ടത് അതിൻറെ നടപടി ക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് സാർ ഒന്ന് വിശദീകരിച്ച് ചെന്ന് ഒന്ന് പറഞ്ഞ് തരാമെങ്കില് കൊള്ളാമായിരുന്നു